അതെ ഞാൻ ഞാൻ കോട്ടയത്തുനിന്ന് വിളിക്കുകയാണ് എനിക്ക് അതെ എനിക്ക് അവിടെ വന്നുള്ള ചികിത്സ മസ്സാജ് നടത്താനായിട്ട് ആയിരുന്നു കാരണം ഞാൻ സൗതാഫ്രിക്കയിൽനിന്നാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ വന്നിട്ട് ഒരുമാസം ആയി പക്ഷെ ഭയങ്കര ബോഡി പെയിൻ ആണ് ബാക് പെയിൻ ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പം അവിടെ ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ആയി ഇത് തുടങ്ങിയിട്ട് പെയിൻ തുടങ്ങിയിട്ട് അപ്പം മാറും എന്നോർത്ത് ഞാൻ എൻറ്റേതായ പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കി പക്ഷെ മാറുന്നില്ല കുറേ ട്രൈ ചെയ്തു നോക്കിയതാ ഞാൻ അത് ഏ ഓക്കേ ഓക്കെ എത്ര ദിവസം ഏകദേശം വേണ്ടി വരും അവിടെ സ്റ്റേ

എനിക്ക് പോകണ്ടത് സെപ്റ്റംബർ ലാസ്റ്റിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകണം അതെ ഞാനിങ്ങനെയെ എനിക്ക് തൈറോയ്ഡ് പ്രോബ്ളം ഉണ്ട് പക്ഷെ അതിന് മെഡിസിൻ എടുക്കുന്നും ഉണ്ട് അതൊന്നും ഇതിന് കുഴപ്പം ഇല്ലല്ലോ ലേ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ മ്മ്

ഇവരെടുത്തെ മെഡിസിൻ കഴിക്കണോ എങ്ങനെയാ

ഓക്കേ ആ ഏതായാലും ഞാൻ ഈ തിങ്കളാഴ്ചത്തേക്ക് അങ്ങോട്ടേക്ക് വരാം